മണ്ണിലുള്ള ചീഞ്ഞ ഇലകളും അതായത് നമുക്കിപ്പോൾ ചെടികൾ ഇപ്പോൾ നമ്മളെന്തെങ്കിലും പച്ചക്കറികളോ കാര്യങ്ങളോ ഒക്കെ നടുന്നുണ്ടെങ്കിൽ വീട്ടിൽ പച്ചക്കറികൾ തന്നെ ആവണ്ട നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തെങ്ങ് വാഴ പച്ചക്കറി പിന്നെ പൂച്ചെടികൾ അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ വളർത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ പച്ചക്കറികളും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ജൈവവളം മാത്രം ഉപയോഗിക്കുള്ളൂ രാസവളങ്ങള് നമ്മള് കൂടുതലായിട്ട് യൂസ് ചെയ്യില്ല നമ്മള് വീട്ടിലേയ്ക്കു ഉപയോഗിക്കേണ്ട സാധനങ്ങളാകുമ്പോൾ നമ്മൾ കൂടുതലും കെമിക്കൽ ഇല്ലാണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം അതിനു വേണ്ടി ആണല്ലോ നമ്മള് മെയിനായിട്ടും വീട്ടിൽ വളർത്തുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള അതായത് മണ്ണിലുള്ള ചീഞ്ഞ ഇലകൾ അതായത് ഇങ്ങനെ പ്ലാവ് അതായത് നമ്മൾ പ്ലാവ് മാവ് അല്ലെങ്കിൽ മുറ്റത്ത് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവരാവുമ്പോൾ നമ്മളീ അടിച്ച് വാരി കൂട്ടി കൂട്ടി വെക്കുന്ന അതായത് ഇലകൾ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടെങ്കിൽ അതൊക്കെ ചീഞ്ഞ് ചീഞ്ഞ് പോകും അപ്പോൾ അതൊക്കെ ചീഞ്ഞ് പോകുമ്പോൾ അതൊരു മണ്ണിൻ്റെ ഒരു കൂട്ട് പോലെ ആവും അപ്പോൾ അതൊക്കെ നമ്മള് ഈ ചെടികൾക്കും പൂച്ചെടികൾക്കാണെങ്കിൽ പൂച്ചെടികൾക്ക് പച്ചക്കറികൾക്കാണെങ്കിൽ പച്ചക്കറികൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മളത് ഇടുകയാണെങ്കില് അത് ഏറ്റവും നല്ലതായിരിക്കും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളക്കൂറുള്ള സാധനമാണിത് അപ്പോൾ ഈ ചെടികളൊക്കെ നല്ല ഫലഭൂഷ്ടമായിട്ട് വളരാൻ ഇത് ഒരുപാട് സഹായിക്കും